നമ്മുടെ രാജ്യത്തെ നിയമങ്ങള് പ്രതികളെ ഒരു പരിധിവരെ ശിക്ഷിക്കുന്നുള്ളൂ നമ്മുടെ രാജ്യത്ത് അനുദിനം നടന്നുകൊണ്ടിരിക്കുന്ന കുറ്റകൃത്യങ്ങള് ആ കുറ്റകൃത്യങ്ങള് കൊച്ചുകുട്ടികളില് തുടങ്ങി മുതിര്ന്നവരിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ലഹരിയുടെ ഉപയോഗം കുട്ടികളെപ്പോലും കൊലപാതകികളാക്കുന്ന ഒരു സാഹചര്യം ലഹരിയുടെ അമിതമായ ഉപയോഗം പിഞ്ചുകുട്ടികളെപ്പോലും പീഡിപ്പിക്കപ്പെടുന്ന ഒരു സമൂഹത്തെ നമുക്ക് കാണിച്ചുതരുന്നു അത്തരത്തിലുള്ള സമൂഹത്തില് ഓരോ പൗരന്മാരും എത്രത്തോളം സുരക്ഷിതരാണ് എന്നുള്ളത് സംശയിക്കേണ്ട കാര്യം തന്നെയാണ് പൗരന്മാരെ സംരക്ഷിക്കുന്നതിനും സമൂഹത്തില് സമാധാനം നിലനിര്ത്തുന്നതിനും പര്യാപ്തമായ ഒരു നിയമവ്യവസ്ഥ ഇന്ന് നമ്മുടെ രാജ്യത്തില്ല പ്രതികളൊക്കെ ജയിലുകളില് സുഭിക്ഷമായി ഭക്ഷണം കഴിച്ച് കൊഴുത്തുകൊണ്ടിരിക്കുന്ന തടി കൊഴിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മള് ജീവിക്കുന്നത് പ്രതികളാക്കപ്പെടുന്നവര്പോലും അവരുടെ പ്രായപരിഗണന വെച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്നു കൊച്ചുകുട്ടികളാണെങ്കിൽ പോലും അത്തരത്തിലുള്ള ഒരു സമൂഹത്തില് ഒരു രാജ്യത്തില് നിയമ വ്യവസ്ഥയില് സാരമായ ചില മാറ്റങ്ങള് വരേണ്ടതായിട്ടുണ്ട് കാലത്തിനനുയോജ്യമായ മാറ്റങ്ങള് വരേണ്ടതായിട്ടുണ്ട് മാതൃകാപരമായ ശിക്ഷ നടപ്പിലാക്കുവാനായിട്ടുള്ള സംവിധാനങ്ങള് തിരുത്തലുകള് നമ്മുടെ നിയമവ്യവസ്ഥയില് വന്നിട്ടുണ്ടെങ്കിൽ തീര്ച്ചയായിട്ടും കുറ്റകൃത്യങ്ങളില് ഏര്പ്പെടുന്ന സമയം ഒരു തിരിഞ്ഞുനോക്കുവാന് വേണ്ടിയിട്ട് അത് അതിനുശേഷം സംഭവിക്കാവുന്ന ശിക്ഷാരീതികളെ കുറിച്ച് ഭയന്നുകൊണ്ട് പിന്തിരിഞ്ഞുപോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകും അതുകൊണ്ടുതന്നെ നിയമവ്യവസ്ഥ എല്ലാ പൗരന്മാരെയും തുല്യമായ രീതിയില് പരിഗണിക്കുന്ന രീതിയില് ആയിമാറണം പൗരന്മാരെ സംരക്ഷിക്കുന്ന ജാതി മത രാഷ്ട്രീയ ചിന്തകൾക്ക് അധീതമായിട്ട് ഓരോ വ്യക്തികളെയും സംരക്ഷിക്കുവാന് ഉത്തരവാദിത്തമുള്ള നിയമവ്യവസ്ഥയാകണം നമ്മുടെ രാജ്യത്ത് ഉണ്ടാകേണ്ടത് അത്തരത്തിലുള്ള ഒരു നിയമവ്യവസ്തയെ സ്വപ്നംകണ്ടുകൊണ്ട് മുന്നേറുവാന് നമുക്ക് സാധിക്കട്ടെ